ടൂറിസം മേഖലയിൽ ഇപ്പം നല്ല പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് ടൂറിസത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും നല്ല വരുമാനം തന്നെയാണ് ടൂറിസത്തിനെകൊണ്ട് ഈ നമ്മുടെ നാടിന് ഉണ്ടായിരിക്കുന്നത് അതുപോലെതന്നെ എടുത്തു പറയാവുന്ന ഒന്നാണ് വിദേശ വിദേശികൾ വിദേശികൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട് കാണാൻ വേണ്ടീട്ട് ഇഷ്ടം പോലെ വിദേശികൾ വരുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അവർ അവർ അവരുടെ ഇടപെടലുകളും നല്ല നല്ല ഒരു രീതിയാണ് എവിടെപ്പോയാലും നമുക്ക് കാണാൻ കഴിയുന്നത് കോവളത്തായാലും മീമീശത്തായാലും എന്തിന് പറയണം വേളി ശംഘുമുഖം പത്മനാഭപുരം കൊട്ടാരം ഇത് എ അ അവർ കൊട്ടാരത്തിലൊക്കെ വന്നാൽ അവർ എന്ത് മനോഹരമായിട്ടാണ് പൂ ഇ പു നമ്മുടെ ഈ പുരു പുരാതന വസ്തുക്കൾ അവർ കണ്ട് ഓരോ ഗെയിടുമാരെടുത്ത് അവർ ഇത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അത്രയ്ക്ക് നല്ല ഒരു ഇടപെടലാണ് വിദേശികൾ അത് അവർ വ വരുന്നതുകൊണ്ടാണ് നമുക്ക് വരുമാനം ഉണ്ടാകുന്നത് അത് അതുകൊണ്ടാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത് ഹോം ഹോം ഹോംസ്റ്റേയ്ക്ക് വന്നാലും അവർക്ക് നമ്മുടെ നമ്മളെ കേരള കൺട്രീസ് കേ കേരളത്തിന്റെ ഫുഡ് കേരളത്തിന്റെ ഫുഡെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വിദേശി വിദേശികൾക്ക് അവർക്ക് നമ്മുടെ നാടൻ നാടൻ ആഹാരമായിരുന്നാലും ഡ്രെസ്സിംഗ് രീതി രീതിയായിരുന്നാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പുരോഗതിയാണ് നമ്മുക്ക് ഉണ്ടായിരിക്കുന്നത് ഈ പറയാൻ ഹോം ഹോംസ്റ്റേക്കായിരുന്നാലും അതുപോലെതന്നെ സാധനങ്ങൾ വാങ്ങാനായിരുന്നാലും വീ സാധനങ്ങൾ വിൽ വിൽക്കുന്നവർക്കായിരുന്നാലും നല്ല കച്ചവടമുണ്ടാകും ഹോം സ്റ്റേ ചെയ്യുന്നവർക്കും ഹോട്ടലുകൾക്കും ഒക്കെ നല്ല വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ടൂറിസമെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ നമ്മുടെ ഈ പൊന്മുടി നമ്മുടെ ഈ നെടുമങ്ങാട് വിതുര പൊന്മുടി പൊന്മുടി വാഴ്വാൻതോട് ഇതൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ധാരാളം ജനങ്ങൾ കുത്തൊഴുക്കിൽപെട്ട് വരുന്നത് പോലെയാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഈ പറയാൻ കഴിഞ്ഞ ഒക്ടോബർ ഒക്റ്റോബർ മാസത്തിൽ ഈ പൊന്മുടിയിൽ പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്ന് വന്ന ഈ സൈക്കിൾ റൈഡ് സൈക്കൾ റൈഡ് ഉണ്ടായിരുന്നു അത് അതൊക്കെ കാണാൻ വേണ്ടി ധാരാളം ജനങ്ങളാണ് വന്ന് വന്നിട്ടുണ്ട് അതുവഴി തന്നെ അവർക്ക് എന്തുമാത്രം പൊന്മുടി നല്ല അവർക്ക് പൊ പൊന്മുടി എക്കോ ടൂറിസത്തിലേയ്ക്ക് നല്ലൊരു വരുമാനമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ടൂറിസം കൊണ്ട് നല്ല ഒരു വരുമാനം തന്നെയാണ് നമ്മുടെ ഈ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്